ജനപ്രിയമായ ഔട്ട്ലെറ്റുകളെന്ന് പറയുമ്പോൾ പത്രങ്ങളും മാസികകളും ടീവി ഫോണ് ഇതെല്ലാം പ്രയോജനകരം തന്നെയാണ് എങ്കിലും മനുഷ്യർ ആൾക്കാർക്കൊരെ സമയം മറ്റു ജോലികൾ ചെയ്തു കൊണ്ട് വാർത്തകൾ അറിയുന്നതിന് അതായത് കേൾക്കാൻ സാധിക്കുന്നത് ഏറെക്കുറേ ഫോണിൽ കൂടി തന്നെ ആണ് അതായത് വെബ്സൈറ്റുകളിലൂടെ ഏതെങ്കിലു ഒരു ചാനലിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു വാർത്തകൾ ശരിക്കും അറിയാനായിട്ട് സാധിക്കും വാർത്തകൾ അറിയാനായിട്ട് സാധിക്കും അറിയാനായിട്ട് സാധിക്കും അത് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ പ്രയോജനകരമാണ് കൂടാതെ ഉടനടി കാര്യങ്ങൾ പത്രങ്ങളിലൂടെ നമ്മൾ പിറ്റേ ദിവസം അല്ലെ വൈകുന്നേരം വരെ കാത്തിരിക്കണം ആ സ്ഥാനത്ത് ഇപ്പം ടീവിയിലൂടെ ആയ ടീവിലൂടെ ആ ടീവിയിലോ ഫോണിലോ ഒക്കെ ഉടനെ തന്നെ നമുക്ക് മിനിറ്റുകൾക്കകം നമുക്ക് വാർത്തകൾ അറിയാൻ പറ്റും ഒരു അപകടം നടന്നാൽ നിമിഷങ്ങൾക്കകം നമുക്ക് അറിയാനായിട്ട് സാധിക്കും അങ്ങനെ വളരെ ഏറെ പ്രയോജനപ്പെട്ട ഒരു ഔട്ട്ലെറ്റ് തന്നെയാണ് വെബ്സൈറ്റെന്ന് പറയുന്നത് ആൾക്കാർക്ക് അങ്ങനെ വെബ്സൈറ്റിൽ കയറി കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റുന്നു റേഡിയോയിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് പറ്റുന്നു റേഡിയോയിലൂടെ നമുക്ക് ജോലി ചെയ്തു കൊണ്ട് റേഡിയോയിലൂടെ നമുക്ക് വാർത്തകൾ അറിയാനായിട്ട് സാധിക്കുന്നു അതും വളരെ ഏറെ പ്രയോജനക്കരമാണ് പിന്നെ ടീവിയെ സംബന്ധിച്ചു നമുക്ക് ഏത് കാര്യവും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പണ്ട് പത്രത്തിലൂടെ വാർത്ത വരത്തെ ഉള്ളൂ നമ്മൾ അത് വായിച്ചു മനസ്സിലാക്കാമെന്നുള്ളതിന് അപ്പുറത്ത് ഇത് കേൾക്കുകയും കാണുവാനും നമുക്ക് ടീവിയിലൂടെ സാധിക്കുന്നുണ്ട് അതിലെ എല്ലാ ഒട്ടുമിക്ക ചാനലുകളിലും ഇപ്പം പലവിധ ചാനലുകളിലൂടെ നമുക്ക് വാർത്തകൾ അറിയാനായിട്ട് സാധിക്കുന്നു ഇപ്പോൾ ഒരു ചാനല് വച്ചു ആ ചാനലിൽ നമുക്ക് വാർത്തകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി ഇഷ്ടപ്പെട്ടില്ല എന്ന് കണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ മറ്റൊരു ചാനൽ വച്ചു അത് കാണാനായിട്ട് സാധിക്കുന്നു അങ്ങനെ വെബ്സൈറ്റുകളും ചാനലുകളും ഈ ടീവിയൊക്കെ വളരെ ഏറെ മനുഷ്യന് പ്രയോജനപ്രദമാണ്